ഞാനങ്ങനെ വലിയ നർത്തകിയൊന്നുമല്ല പക്ഷേ ചില അവസരങ്ങളില് നമുക്ക് ചില അതായത് ഞാന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും അല്ലെങ്കില് ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോവുന്ന സ്ഥലത്താണേലും പല അവസരങ്ങളെനിക്ക് കിട്ടിയിട്ടുണ്ട് ഡാൻസ് ചെയ്യാനായിട്ട് അത് നമുക്കത് പല മുമ്പ് അതായത് നമ്മളൊരു ഒരു രീതിയിലുള്ള ന് നൃത്തം മാത്രമല്ലല്ലോ നമ്മള് ചെയ്യുന്നത് പല രീ പല ടൈപ്പായിരിക്കും ചെയ്യുന്നേ പല രീതിയിലുള്ള നൃത്തമായിരിക്കും ചെൽ ചെയ്യുന്നത് ചിലപ്പോള് ഒപ്പനയായിരിക്കും ചിലപ്പോള് തിരുവാതിരയായിരിക്കും ചിലപ്പോള് എന്തുവാ ഇച്ചിരെ ഒരു ഇതായിട്ടുള്ള അതായത് സി അല്ല എന്തുവാ നാടൻ രീതിയിലുള്ള നൃത്തമായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള നൃത്തങ്ങള് ഉ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോള് അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോള് ചെയ്തിട്ടുണ്ട് അല്ലാതെ ജോലി ചെയ്യുന്ന സമയത്തും ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഇപ്പോള് അങ്ങനെ കൂടുതല് പറയാനായിട്ട് വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല അങ്ങനൊക്കെയുള്ള ചെറിയ ചെറിയ ഡാൻസുകളൊക്കേ ചെയ്തിട്ടുള്ളൂ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ വലിയ ഭാരതനാട്യമോ മോഹിനിയാട്ടമോ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാനൊന്നു അറിയത്തില്ല അത്യാവശ്യം എല്ലായിടത്തും എല്ലാവരുടെയും കൂടെ എന്തെങ്കിലൊക്ക ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ ഒന്നും എനിക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല അങ്ങനെ മാറി മാറി ഓരോ ഓ അതായതോരോ മതത്തിനെ ഇത് ചെയ്തിട്ടുള്ളോരോ നൃത്തങ്ങളുമൊക്കെയുണ്ടല്ലോ അതൊക്കെ മാറി മാറി ഞാന് ചെയ്യാറുണ്ട് പിന്നെ ക്രിസ്ത്യാനികളുടെയാണേല് മാർഗ്ഗംകളി ചെയ്തിട്ടുണ്ട് അതേ മാർഗ്ഗംകള എന്നു പറയുന്ന ഇച്ചിരെ പാടുള്ള കളിയാണ് എല്ലാവരും ഒരുമിച്ചൊരേ പോലെ ചെയ്താല് മാത്രേ ഉള്ളതിൻ്റെ ഭംഗി കിട്ടത്തുള്ളൂ അങ്ങനെ ചെയ്യണ്ട അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണതൊക്കെ പഠിച്ചത് അത് ഇച്ചിര ബുദ്ധിമുട്ട് തന്നായിരുന്നത് പഠിക്കാനായിട്ട് അതൊക്കെ ബുദ്ധിമുട്ടിയാണേലത് പഠിച്ചെടുത്ത് ഞങ്ങളത് കളിച്ചിട്ടുണ്ടിച്ചിര പ്രായമായി കഴിഞ്ഞാണത് കളിക്കാനുള്ള ഒരവസരം കിട്ടിയതെങ്കിലും അത് ഒരു അവസരം നമ്മള് വിനിയോഗിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ അതൊക്കെ ചെയ്യാന് പറ്റിയിട്ടുണ്ടതൊക്കെ അവർക്ക് സന്തോഷം നൽകുന്നൊരു കാര്യങ്ങളാണ്